എല്ലാവരും വാർത്ത കാണണം അല്ലങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ബോധവാൻമാരായിരിക്കണം അപ്പോൾ വാർത്ത കാണുകയെന്നുള്ളത് എല്ലാവർക്കും സംബന്ധിച്ച് ഒരു നിർബന്ധമായുള്ള കാര്യമായി മാറ്റേണ്ടത് ഇരിക്കുന്നു കാരണം ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാ ഒന്നും മനസ്സിലാക്കാനവർ തയ്യാറാകുന്നില്ല അതിനുള്ള സമയം കണ്ടെത്തുന്നില്ല വാർത്ത കാണുക അല്ലെങ്കിൽ പത്രം വായിക്കുക എന്നുള്ളത് ഒക്കെ നല്ല ശീലങ്ങളാണ് അപ്പോൾ അത് യുവതലമുറയെ അത് തീർച്ചയായും പഠിപ്പിക്കേണ്ട കാര്യമാണ് ഞാൻ തീർച്ചയായും വാർത്ത അത് ശ്രദ്ധിക്കാൻ യുവതലമുറയെ പ്രേരിപ്പിക്കാറുണ്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് കാരണം വാർത്ത കാണുന്നതിലൂടെ അവർക്ക് ഒരിക്കലും ഒരു നഷ്ട്ടം എന്ന് പറയാൻ ഒന്നും ഇല്ല നമ്മൾ എപ്പോഴും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് വാർത്ത കാണുന്നതിനുള്ള വാർത്ത ശ്രദ്ധിക്ക ശ്രദ്ധിക്കുന്നതുകൊണ്ടുള്ള ഒരുപാട് പ്രയോജനങ്ങളുണ്ട് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ഓരോ കാര്യങ്ങള് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അല്ലങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി രാഷ്ട്രപതി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഒരു നല്ല ഒരു ധാരണ എങ്ങനെയാണ് സമൂഹത്തിൽ കാണേണ്ടത് അല്ലെങ്കിൽ വീക്ഷിക്കേണ്ടത് എന്നൊരു ഒരു ഒരു ഐഡിയ നമുക്ക് കിട്ടണത് ഈ ഒരു വാർത്ത ചാനലിലൂടെയാണ് ആദ്യം കുറച്ച് ദിവസം മടുപ്പും മറ്റും തോന്നുമെങ്കിലും പിന്നീട് നമ്മൾ അതിലോട്ട് ഇറങ്ങി ചെല്ലണ സമയത്ത് ക്രിക്കറ്റ് ആയിക്കോട്ടെ ക്രിക്കറ്റില് നമുക്ക് അധികം നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും പിന്നീട് ഓരോ ആൾക്കാരെ നമ്മൾ ക്രിക്കറ്റിലെ ഓരോ ആൾക്കാരെ നമ്മൾ തിരിച്ചറിയും എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും തുടക്കത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നുള്ളു പക്ഷെ നമ്മള് പിന്നീട് തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ വാർത്ത കാണുന്നതിലൂടെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് പൊതുസമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന പൊതു സമൂഹത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവയെ കാണാൻ അല്ലെങ്കിൽ അവയെക്കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റും നേരിടുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങളും മറ്റും കാര്യങ്ങളും വേണം അപ്പോൾ എങ്ങനെയാണ് ഓരോ പ്രശ്നത്തിൽ കൈകാര്യം ചെയ്യുകയെന്നുള്ളത് നമുക്ക് വാർത്തകൾ കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും